അനക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഹോബിയിൽ ഒന്നാന്ന് കുക്കിംഗ് എപ്പോഴും അടുക്കളയിൽ ചെയ്യുന്നതാണ് നമ്മൾ വീട്ടമ്മമാർല്ലാം എപ്പോളും ചെയ്യുന്നതാണ് കുക്കിംഗ് അതുകൊണ്ട് തന്നെ അത് കുറച്ചെല്ലാം അറിയാം അനക്ക് ഇഷ്ടവുമാണ് ഞാൻ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല യൂട്യൂബ് ചാനൽ ഒന്നുമില്ല എന്നാലും വീട്ടിൽ നിന്നെല്ലാം ഫോണിലെല്ലാം നോക്കിയിട്ട് ഞാൻ ഓരോരോ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതല്ലാണ്ട് വീഡിയോ എടുത്ത് ഇട്ടിട്ടൊന്നുമില്ല പാചക മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗൻവാടിയിലൊരു ചെറിയ പരുപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊരു ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നതാന്ന് അപ്പോൾ അതൊരു കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു പരുപാടിയാന്ന് അ അത് ഞാൻ ഞാൻ പാല് കൊണ്ടു പോയി സേമിയ കൊണ്ടു പോയി പഞ്ചസാര കൊണ്ട്പോയി ഏലക്കാ പൊടിച്ചത് കൊണ്ടുപോയി അങ്ങനെ അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഞാൻ പാചക മത്സരത്തിന് പോയത് ആ അപ്പോൾ അവിടെ ഒരു അഞ്ച് പത്ത് ആൾക്കാരുണ്ട് ആ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവിടെ ചെന്ന് അത് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ സാധാരണ വീടുകളിൽ എല്ലാം വെക്കുന്ന പോലെത്തന്നെ പാൽ പാൽ തിളച്ച് അതിനകത്ത് സേമിയ ഇട്ട് പിന്നെ അത് വെന്ത് വരുമ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ഒരു നുള്ള് ഉപ്പ് ഇട്ടിന് ഏലക്കാ പൊടി ഇട്ടിന് അപ്പോൾ അതെല്ലാം ഇട്ട് ഇളക്കി ഒരു പായസമാക്കി പായസമാക്കി വെച്ച് ഇത് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് ഇതെല്ലാമാക്കിയത് അങ്കവാടിയിലെ ചെറിയ ഒരു പരിപാടീൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് അങ്ങനെ വലിയ ഒരു മത്സരത്തിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല